തീർച്ചയായും എൻ്റെ കുടുംബം ഇതിനെ വളരെ അധികം പിന്തുണക്കുന്നുണ്ട് കാരണം എന്ത് എന്ന് വെച്ചാൽ ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഫോട്ടോഗ്രാഫി അതുകൊണ്ട് തന്നെ അവർക്ക് അതുകൊണ്ട് വളരെ ഇഷ്ടമാണ് പിന്നെ ഞാൻ ഇത് ചെയ്യുന്നത് എൻ്റെ സന്തോഷത്തിനാണ് എൻ്റെ ഇഷ്ടം കൊണ്ടാണ് അപ്പം ഞാൻ ഇത് ചെയ്യുമ്പോൾ എൻ്റെ ഈ ഫോട്ടോസ് എല്ലാം കണ്ടിട്ട് ആർക്കും വളരെ അധികം സന്തോഷം തോന്നാറുണ്ട് അത്ഭുതം തോന്നാറുണ്ട് അപ്പോൾ എൻ്റെ ഇഷ്ടം തന്നെയാണ് അവർ പിന്തുണക്കുന്നത് അവ അവർ പിന്തുണക്കുന്നത് എനിക്കും വളരെ സന്തോഷം തന്നെയാണ്